ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് അത് ഡ്രൈവർ കറക്ട സമയത്തു സ്ഥലത്തെത്താത്തതു കാരണം ആണ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നത് അത് കാരണം എനിക്കാ ഞാൻ ചെയ്ത എമൗണ്ട് റീഫണ്ട് വേണം അപ്പോൾ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഇനി എനിക്ക് ക്യാബ് വേണ്ട ആവശ്യം ഇല്ല ഓക്കേ